പട്ടിയുടെ കടിയേറ്റാലാദ്യമായി ചെയ്യേണ്ടത് സോപ്പിട്ട് നല്ലപോലത്തെ നല്ല വെള്ളത്തിൽ കഴുകുക അതിനുശേഷം നമ്മൾ പ്രഥമ ശുശ്രൂഷ കൊടുക്കുക ഏറ്റവും ഏറ്റവും അത്യാവശ്യമായിട്ട് ആദ്യം തന്നെ ആശുപത്രിയിൽ പോയി മരുന്ന് അത് പട്ടി കടി പട്ടി കടിച്ച കാര്യം അവരോട് പറയ്കാ അവർ അതിനുള്ള പ്രഥമ ശുശ്രൂഷ നൽകും അതിനുശേഷം ഇഞ്ചക്ഷനുണ്ട് അത് എടുക്കുക അഞ്ച് ഇഞ്ചക്ഷനാണുള്ളത് അത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുന്ന് ഫ്രീ ആയിട്ടാണ് അത് ചെയ്തു കൊടുക്കുന്നത് സൗജന്യമായിട്ടുള്ളതാണ് ആ കുത്തിവെപ്പ് എന്തായാലും എടുത്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ പട്ടി കടിച്ച പട്ടിക്ക് പട്ടിയെ വീട്ടിൽ വളർത്തുമ്പോൾ അതിന് പ്രത്യേകമായ കുത്തിവെപ്പുകൾ എടുക്കണം അതുകൂടാതെ അത് ലൈസൻസ് വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് ലൈസൻസൊക്കെ ഉണ്ടായിരിക്കണം പിന്നെ പട്ടി കടിച്ചു കഴിഞ്ഞാൽ പ ലേ നമ്മൾ വാക്സിനെട് നമ്മൾ ആ പട്ടി കടിച്ച ആൾ ആ വ്യക്തി ആ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ നമുക്ക് പട്ടി പേ പട്ടി ഇത് പേയ് ഉണ്ടോ ഇല്ലയോന്നറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളീ വാക്സിൻ തീർച്ചയായിട്ടും എടുക്കണം എന്നു പറയുന്നത് അലർജി ഉള്ളൊരു വ്യക്തി ആണെങ്കിൽ അത് കുത്തി വെയ്പ്പ് എടുത്ത് കഴിഞ്ഞ് എന്തേലും അലർജി ഉള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് പ്രത്യേകം വേറൊരു സൈസ് വാക്സിനാണ് കൊടുത്തൊണ്ടിരിക്കുന്നത്